ഞങ്ങളുടെ പക്കലുള്ള നെയ്ത്ത് എന്ന് സാധാരണ നമ്മുടെ കേരളത്തിൽ വലിയ ഫാക്ടറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നെയ്ത്തൊക്കെ സാധാരണ സാധാ മെഷനേലാണ് സാധാരണ ഞങ്ങൾ നെയ് എന്തെങ്കിലും തയ്ക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ നെയ്ത്തിനുള്ള നൂലും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പിളി നൂലുകൾ അങ്ങനെയൊക്കെ നമ്മൾ ക്രോഷ്യോ ഉപയോഗിച്ചൊക്കൊ കുറേ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണ് ഉപകരണങ്ങൾ എന്ന് പറയുമ്പം മെഷ്യനൊണ്ട് പിന്നെ നൂലുകൾ കമ്പിളി നൂലുകൾ യന്ത്രങ്ങൾ അങ്ങനെയുള്ള സാധനം യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യന്ത്രങ്ങളൊന്നും നമ്മുടെയിലൊന്നും ഇല്ല കമ്പിളി നൂലുകളും മെഷ്യനുകൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും മെച്ചപ്പെടാൻ ഏത് സാധനമാണെന്ന് ചോദിച്ചാൽ കൂടുതലായി വാങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കൂടുതലായിട്ട് വാങ്ങാൻ ഉള്ളത് നമ്മുടെ ഇവിടെ കേരളത്തിൽ നമുക്കിപ്പം ഇല്ലാത്തത് എന്ന് പറയുകയാണെങ്കിൽ കമ്പിളി സെറ്ററുകൾ എങ്ങനെയൊക്കെ തുന്നാനൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ കുഞ്ഞുങ്ങളെ ഒക്കെയാണെങ്കിലും സ്കൂളിലോ സ്കൂളുകളിലൊക്കെ ക്രോഷിയൊയൊക്കെ ഉപയോഗിച്ച് പണ്ടത്തെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു തയ്യലിൻ്റെ ക്ലാസ്സൊക്കെ അതുപോലൊക്കെ ക്ലാസ്സുകളൊക്കെ ഇടുവായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുമാതിരി പഠിച്ച് കേറിവരായിരുന്ന ഒരു ഒരു പിരീഡ് അതിനൊക്കെ കൊടുക്കുവായിരുന്നെങ്കിൽ നന്നായിരുന്നേനേ പിന്നെ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇതൊക്കെ കൊടുക്കാണെങ്കിൽ അവർക്കൊരു ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ സ്റ്റിച്ചിങ്ങും കൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് തന്ന താനെ അവരുടെ ഡ്രസ്സുകൾ തയ്ച്ചിടുന്നതിനും അതിനൊക്കെ ഉള്ള ഒരു അഭിരുചി ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ക്ലാസ്സുകളൊക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അതിൽ കൂടുതലായിട്ട് വാങ്ങേണ്ട മെഷ്യനൊക്കെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ മെഷ്യനക്കെ വേടിച്ച് കൊടുക്കുകയോ അല്ലേൽ അതിനുള്ള ലോണുകൾ കൊടുക്കുകയോ അതിനുള്ള നൂലുകൾ ഒക്കെ വാങ്ങി കൊടുത്തിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ത്രീകൾ തൊഴിലില്ലാതെ നടക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു പിന്നെ ഓ പിന്നെ തൊഴിലുറപ്പിന് പോകാൻ പറ്റത്തില്ലാതിരിക്കുന്നവരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു മെഷ്യനൊക്കെ വേടിച്ച് കൊടുക്കുകയും നൂലുമൊക്കെ സപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു ഉപജീവന മാർഗ്ഗമായി തീർന്നേനെ

പിന്നെ ഗ്രാമപ്രദേശങ്ങളിലാണിത് കൂടുതലും വേണ്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പട്ടണങ്ങളിലൊക്കെ എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വേടിച്ച് കൊടുത്താൽ നന്നായിരിക്കും ഇതിൽ കൂടുതൽ മെച്ചപ്പെടാൻ നൂലുകളും മെഷ്യനുകള് അതിനുള്ള ഉപകരണങ്ങളൊക്കെ സ്കൂള് വഴിയും പിന്നെ ഓരോ സംഘം സംഘം വഴിയും സംഘത്തിൻ്റെ തയ്യലറിയാവുന്നവരെ കൊണ്ട് ക്ലാസ്സ് എടുപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ക്ലാസ്സ് എടുപ്പിക്കാനും ഒക്കെ ആയിട്ട് പരിശ്രമിക്കുക അതൊക്കെയാണിപ്പം നമുക്ക് എനിക്ക് പറയാനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ